നമസ്ക്കാരം ഞാൻ അശോക് കേരളം കലാപരമായ അനവധി നിരവധി സംസ്ക്കാരങ്ങൾ ഉള്ളൊരു സംസ്ഥനമാണ് കേരളത്തിൻ്റെ സംസ്കാരം സംസ്ക്കാരങ്ങളാണ് കേരളത്തെ ലോകപ്രശസ്തമാക്കുന്നത് അതുകൊണ്ട് നാം ഈ സംസ്ക്കാരങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടോരു ആവശ്യമാണ് ഇ ഇ ഇത്തരം സംസ്ക്കാരങ്ങളെ സംരക്ഷിക്കാൻ ഗവൺമെൻറ്റ് അനവധി സബ്സിഡികളും മറ്റും നൽകുന്നും ഉണ്ട് എന്നാൽ ഇ ഇ ഇതെല്ലാം എത്തേണ്ട സമയത്ത് എത്തേണ്ടടത്ത് എത്തുന്നുണ്ടോന്ന് നമുക്ക് നമ്മൾക്കാർക്കും വ്യക്തമായി അറിയില്ല ഉദാഹരണത്തിന് ചേന്ദമംഗലം കൈത്തറി ഇ ഇത് ലോകപ്രശസ്തമായൊരു കൈത്തറിയാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം മൂലം ഇവ ഇ ഇ ഇവ ഏതാണ്ട് ഏതാണ്ട് ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാം പക്ഷേ ഗവൺമെൻറ്റിൽ നിന്ന് യാതൊരു സഹായോം എത്തിയതായി റിപ്പോർട്ട് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഇതിൽ നിന്ന് നമുക്ക് മനസിലാക്കാം ഗവൺമെൻറ്റ് കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ്റ് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധപുലർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു